ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്ന ഒരു വിഷയം എന്നു പറയുന്നത് സാമൂഹ്യ ശാസ്ത്രമാണ് സാമൂഹ്യ ശാസ്ത്രം എന്നു പറയുമ്പോൾ നമുക്കത് എന്താ പറയുക നമ്മളത് പഠിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തെ ചരിത്രവും നമ്മുടെ ഭൂമിയുടെ ഭൗതിക സാഹചര്യങ്ങളും എല്ലാം മനസ്സിലാക്കാൻ നമുക്ക് ആ ഒരു വിഷയം സഹായിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടൊരു സബ്ജെക്റ്റായിരുന്നു പിന്നെ നമ്മുടെ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും അതൊക്കെ നടന്ന വർഷവും അതിനു സഹായിച്ച ആൾക്കാരെയും തുടങ്ങിയവരെയൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കാനൊക്കെ നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഒരു ഇതാണ് ഒരു സംഭവം ഈ സോഷ്യൽ സയൻസിലുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് സോഷ്യൽ സയൻസ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു വിഷയം